ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായി അറിയപ്പെടുന്നത് ഓണം ആണ് തെക്കൻ കേരളത്തിലാണ് ഓണം പ്രധാനമായും ആഘോഷിക്കുന്നത് അത്തം ഒന്നു മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലാണ് ഓണം ആഘോഷിക്കുന്നത് അതിമനോഹരമായ സദ്യയോടു കൂടിയാണ് ഓണത്തെ എല്ലാവരും വരവേൽക്കുന്നത് അടുത്തതായി പറയുകയാണെങ്കിൽ വിഷു പ്രധാന ദേശീയ ഉത്സവമായി ആഘോഷിക്കാറുണ്ട് കൊന്നപ്പൂക്കളും പറിക്കുകയും കണി കാണുകയും കണി വയ്ക്കുകയും എല്ലാം ഒരു പ്രധാന ആചാരമായി കാണപ്പെടുന്നു അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ആഘോഷമായി അറിയുന്നത് ക്രിസ്മസ് അതുപോലെത്തന്നെ ദീപാവലി എന്നീ ദിവസം എന്നീ ആഘോഷങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലും കേരളത്തിലും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലായിട്ട് അറിയപ്പെടുന്നുണ്ട് ഇവയെല്ലാം ആഘോഷിക്കുന്നത് കേരളീയ തനിമയോടു കൂടിയാണ് അതായത് ദീപാവലിയെല്ലാം വടക്ക് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലാണ് ഏറ്റവും അധികം പ്രചാരത്തിലുള്ളത്